എടീ ആര്യേ എടീ ഞാൻ നിന്നെ കുറേ ആയി വിചാരിക്കുന്നു എനിക്ക് കണ്ണിന് വല്ലാത്ത ഒരസ്വസ്ഥത രാവിലെ എപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ചാടുന്നു അലർജി പ്രശ്നങ്ങൾ ഞാൻ മുന്നേ ഒരു അലോപ്പതി കാണിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് തോന്നുന്നു അതെനിക്ക് മരുന്ന് പിടിക്കുന്നില്ല തോന്നുന്നത് നിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതാണ് നല്ലത് ആയുർവേദം കണ്ണാശുപത്രി ഉള്ളത് കാണിക്കാൻ പറ്റിയത് ഇല്ല ഇല്ലെടി വല്ലാത്ത അലർജി പ്രോബ്ലംസ് വരുന്നു എന്ന് വച്ചാൽ കണ്ണ് ചൊറിച്ചിൽ കണ്ണിൽ നിന്ന് അളി വരിക അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം ചാടിയിട്ട് ഉള്ള പ്രശ്നത്തിനായിരുന്നു ഞാൻ കാണിച്ചത് പക്ഷെ ഈ അലോപ്പതി യൂസ് ചെയ്തിട്ട് നോക്കുമ്പോൾ വല്ലാണ്ട് കണ്ണിൽ നിന്ന് ചൊറിച്ചൽ അളി ഇതൊക്കെ വരുന്നു ഇതൊക്കെ വല്ലാണ്ട് അസ്വസ്ഥത ആവുന്നുണ്ട് അതാണ് ഞാൻ നിന്നോട് ചോദിച്ചത് നീ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഏതോ നല്ല ആയുർവേദ കണ്ണാശുപത്രി ഉണ്ട് എന്ന് അപ്പോൾ അതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് അവിടെ അലോപ്പതി എടുത്തിട്ട് ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇനി ഇപ്പോൾ ആയുർവ്വേദം കാണിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ കണ്ടേരേ ചോദിച്ചത് ഏതാണ് നല്ലത് ആയുർവേദ കണ്ണാശുപത്രി ഉണ്ടോ എന്ന് അപ്പോൾ അവിടത്തെ നല്ല കാര്യങ്ങളാണെന്നാണോ നീ പറയുന്നത് നല്ല ഡോക്ടേഴ്സും നഴ്സും ഒക്കെ ആണോ നല്ല സേവനങ്ങളാണോ പിന്നെ പൈസ ഒക്കെ ചുരുക്കം നമ്മൾക്ക് കിട്ടോ ചുരുക്കിയിട്ട് നമ്മൾക്ക് ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ അതാണ് ഞാൻ ചോദിച്ചത് നീ മുന്നേ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആയുർവ്വേദ കണ്ണാശുപത്രിനെ പറ്റിയിട്ട് അലോപ്പതി കാണിച്ചിട്ട് ഒരു ഉപകാരവും ഇല്ല കണ്ണിന് കൂടുതൽ പ്രശ്നങ്ങളാവുകയാണ് ചെയ്തത് ഇഷ്ടം പോലെ പൈസയും അതുകൊണ്ട് തന്നെ ആയുർവ്വേദം കാണിച്ചാൽ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഞാൻ ഒന്ന് അവിടെ കാണിക്കാൻ നോക്കാമല്ലേ എന്നാൽ ആ എന്നാൽ ശരി എടി ഓക്കേ